ആ ഞാൻ അല്ലേ തുടരുക ഹലോ ഷൂ ലാൻഡ് ഷൂ ലാൻഡ് അല്ലേ ആ എനിക്ക് ഒരു ഷൂ വേണമായിരുന്നു എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നേ ആ അപ്പോൾ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അത് നല്ല കമ്പനി ആയിട്ടുള്ള സാധനം തന്നെ വേണം ആ അഡിഡാസിൻറേത് വേണം ആ വാപ്പു പിന്നെ ഞങ്ങളേ ഇവിടെയൊക്കെ നിറയെ വെള്ളം ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഷൂ എങ്ങനെ ആയിരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമോ പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുമ്പം ആ ആ അപ്പോൾ ഒരു അപ്പോൾ ഒരു മാഡം ഒരു ഒരു കാര്യം ചോദിച്ചോട്ടേ അപ്പോൾ ഞങ്ങൾ അത് എങ്ങനെ ആയിരിക്കും അതിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും ഒരു ഷൂവിൻ്റെ റേറ്റ് ഓ അത് ഇത്തിരി കൂടുതലാണ് അതിൽ കുറവുള്ളതൊക്കെ ഉണ്ടോ എന്നെങ്കിലും ലെസ് ചെയ്യത്തില്ലേ ആ അപ്പോൾ അത് ഗൂഗിൾ ആ ഞങ്ങൾ അങ്ങനെ അവിടെ വന്ന് ചെയ്യുവാണോ അതോ നിങ്ങൾ എത്തിക്കുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ അതിന് അത് അതിൻ്റെ പിക്ച്ചർ ഇട്ട് തന്ന് കഴിഞ്ഞാൽ കൊള്ളാം ഞാൻ എനിക്ക് ഏത് മോഡൽ ആണെന്നും കൂടെ അറിയേണ്ടേ അതിനകത്ത് ആ അതുകൊണ്ട് ആ ഒരു ഇതുള്ള ആ വാട്ട്സപ്പ് ഉള്ളതാണ് ആ ഇതിൻ്റെ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഡെയിലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടേ അപ്പം നമ്മൾ അതേപോലുള്ള ഈ കമ്പനിയുടേത് ആവുമ്പോഴല്ലേ നമുക്കത് പറ്റുള്ളൂ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആ എന്നാലും അത് പെട്ടെന്ന് വെള്ളം കയറുമ്പോഴെങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയും കൂടെ ആണെന്നൊന്ന് പറഞ്ഞ് തരുമോ ആ ആ ആ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ ആ പറഞ്ഞ് തന്നതിന് ഓക്കെ താങ്ക് യു ഓക്കെ